സാർ നിങ്ങളുടെ സർവ്വീസ് നല്ലതായിരുന്നു എന്ന് കരുതിയാണ് ഞാൻ നിങ്ങളുടെ സേവനത്തിനായി ഞാൻ എൻ്റെ വീട്ടിൽ കാത്തിരുന്നത് നിങ്ങളുടെ തൊഴിലാളിയെ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ അവർ ഫോ ഫോണെടുത്തില്ല നിങ്ങളത് കണ്ടില്ലേ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നു അതിൻ്റെ വിശദാംശങ്ങൾ ഇതിനുത്തരം പറയൂ എന്താണ് ഇതിൻ്റെ മറുപടി നിങ്ങളുടെ നിങ്ങളെന്ത് ന്യായീകരണമാണ് ഇതിൽ പറയുന്നത് വളരെ സത്യസന്ധമായ ഒരു സേവനം നൽകാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിശ്വസിച്ച് എൻ്റെ വിലപ്പെട്ട സമയത്തെ ഞാൻ നിങ്ങളെ മുന്നിൽ ഇതിനായി കാത്തിരുന്നത് എന്നിട്ട് നിങ്ങൾ ഉത്തരവാദിത്തമുള്ള സേവനം നൽക്കുന്നില്ല അപ്പം അതിന് എതിരെ എനിക്ക് കർശനമായ പരാതിയുണ്ട് അത് എങ്ങനെ ഞാൻ പരാതിപ്പെടും അതിന് കൃത്യമായ പിന്നെ മറുപടി നിങ്ങൾ തന്നില്ലെങ്കിൽ എനിക്ക് വളരെ വലിയ എന്താ നിങ്ങൾക്കെതിരെ വലിയ പ്രതിരോധം തന്നെ ഞാൻ തീർക്കുന്നതാണ്